ജോയ് അല്ലേ ആ ഞാൻ ഞാൻ വിളിച്ചതേ ഒരു കാര്യമെനിക്ക് അറിയണമായിരുന്നു ആ എന്റെ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലോ അല്ലേ ആ അത് ആയിട്ട് ഞാൻ വിളിച്ചത് എൻ്റെ കൊച്ചിൻ്റെ പാദസരമൊന്നു മാറിയെടുത്താല് കൊള്ളാമെന്നുണ്ടായിരുന്നേ ആ അപ്പോള് അപ്പോള് ഓഫറുണ്ടോ ആ ആ എത്ര നാളത്തേക്കു കാണും

ആ ഉടനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അതു പിന്നെ ഇപ്പഴോ എത്രയാ അപ്പോള് പുതിയ ഡിസൈനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ പുതിയ ഡിസൈനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ പുതിയ ഡിസൈനുകള് ഫാഷൻ ഡിസൈനുകൾ ഇറക്കിയിട്ടുണ്ടോ

മാല എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പോള് ആ പഴയത് മാലയിട്ടാല് അല്ലാതെ പഴയതിപ്പോള് ഉപയോഗമില്ലാതെ വരില്ലേ അല്ലെങ്കില്പ്പിന്നെ പുതിയത് മേടിച്ചിട്ടുകഴിഞ്ഞാല് പഴയ സ്വർണം ഇവിടെ ഇരിക്കുകയല്ലേ ഉള്ളൂ

അല്ലാ നയൻ വൺ സിക്സാണ് അതിന് അവിടത്തെ ഒരു നിലവിലുള്ള ഒരു ഫാഷന്റെ ഒരു അഞ്ചാറ് ഡിസൈനെടുത്തിട്ടേ അത് ഒന്ന് എനിക്ക് വാട്സ്അപ്പില് അയച്ചേക്കാമോ അപ്പോള് പിള്ളേരുടെ കണ്ട് ഏതാണ്ടൊരഭിപ്രായമൊക്കെ ചോദിച്ചേച്ച് അവിടെ വന്നു നോക്കാം അപ്പോള് ഏതാണ്ടൊക്കെയൊരു അഭിപ്രായം ചോദിച്ചേക്കുകയാണെങ്കില് അവിടെ വന്നിട്ട് ഒത്തിരി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോന്നോർത്താണ്

അ ആ ആ അല്ല വീട്ടിലൊന്ന് ആലോചിക്കുകയാണെങ്കിലേ ഏതാണ്ടൊരു ധാരണയിലൊക്കെ എത്തുകയാണെങ്കില്പ്പിന്നെ അവിടെ വന്നിട്ട് ഒത്തിരി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ

ആ ഇപ്പോള് ആഗോള തലത്തില് സ്വർണ്ണത്തിനു ഭയങ്കര വില കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കുതിച്ചുകുത്തി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ കുറയോന്നോര്ത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതീ കയറിക്കയറിക്കയറിയാണു പോണത് ഇപ്പോഴത്തെ ലെവലനുസരിച്ച് പതിനായിരത്തില്ച്ചെന്നു മുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്

ആ ഉവ്വ് ആ എന്നാല് ഞാൻ വലിയ താമസമില്ലാതെ ഓഫര് തീരുന്നതിനുമുമ്പ് അടുത്ത ഉടനെ വന്ന് കടയില് വരാം കെട്ടോ ഓക്കെ ആ എന്നാല് ആ എന്നാല് ശരി വച്ചേക്കാം